അതേ ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് എനിക്കൊരു കാർ ആവശ്യമായിട്ടുണ്ട് ഡ ഇവിടുന്നൊരു ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ടാണ് ഫാമിലിയായിട്ട് ഞങ്ങൾ ഇവിടെനിന്നൊരു ആറേഴ് പേര് കാണും ഇവിടെ നിന്ന് പോകാൻ രാവിലെ ഒരു പത്തുമണിയൊക്കെ ആകുമ്പോൾ വരിക ജനുവരി ഒന്നാം തീയതിയാണ് ഞങ്ങൾ പോകാൻ കരുതിയിരിക്കുന്നത് നിങ്ങൾ രാവിലെ പത്തരയാകുമ്പോഴേത്തിനും ഇവിടെ പൊൻമുഖത്ത് വരിക ഇവിടെനിന്നങ്ങ് ജനുവരി നാലാം തീയതി തിരിച്ച് വരാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഇവിടെനിന്നങ്ങ് ഫാമിലി പാക്കേജുണ്ടെങ്കിൽ അത് പറയുക ഡിസ്കൗണ്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയണം ഇവിടുന്ന് ഫുൾ അമൌണ്ടാണോ ഹാഫാണോ അമൌണ്ട് അടക്കേണ്ടത് എന്ന് നിങ്ങളൊന്നു പറയുക ഇവിടെനിന്ന് ഊട്ടിയിലേക്കാണ് പോകുന്നത് അവിടെത്തന്നെ സ്റ്റേ ചെയ്യാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഇവിടെ നിന്ന് ഒരു കറക്